എൻ്റെ സെക്കൻഡ് പ്രോഡക്റ്റ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ആണ് അതായത് പിന്നെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റ ഉപകാരം എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം അടുപ്പൊക്കെ കത്തിച്ച് ഇപ്പം പെട്ടെന്ന് ഇപ്പം ആരെങ്കിലും വീട്ടിലൊക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ അടുപ്പെല്ലാം കത്തിച്ച് ചായ വെക്കുമ്പൾത്തേക്ക് കുറേ ടൈം എടുക്കും ചായയോ കാപ്പി ഒക്കെ കൊടുക്കോല്ലോ നമ്മൾ ആരെങ്കിലും വരുമ്പം അപ്പം ഗ്യാസ് ഒക്കെ ഇണ്ടേൽ നമുക്ക് പെട്ടെന്ന് അതായത് ഒര് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് കാപ്പി കാപ്പി ആണെങ്കിലും ചായ ആണെങ്കിലും റെഡിയാക്കി അവർക്ക് കൊടുക്കാൻ പറ്റും പിന്നന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് പാത്രങ്ങളൊന്നും കരിയൊന്നും പിടിക്കാണ്ട് നല്ല വൃത്തിയാക്കി നമുക്ക് കൊണ്ട് നടക്കാം പിന്ന അടുപ്പാണങ്കിൽ നമുക്ക് പെട്ടെന്ന് കരി പിടിക്കും പിന്നെ എപ്പോഴും ആ ഭാഗം കറുത്ത് ഇങ്ങനെ ഇരിക്കും ആ പിന്നെ അതിൻ്റെ ഹീറ്റ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും അതായത് സിം അതായത് നമുക്ക് ഓവർ ചൂട് വേണ്ടെങ്കിൽ അതായത് ഓവർ തീ വേണ്ടെങ്കിൽ നമുക്ക് പിന്നെ സിമ്മിൽ ഇടാം അല്ലെങ്കിൽ നമുക്കത് ഹൈ ഫ്ലേമിൽ ഇടാം അങ്ങനെ ഒക്കെ ചെയ്യാം പിന്നെ ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വളരെ അപകടകരമായിട്ടുള്ള ഒന്നാണ് പിന്നെ ഗ്യാസ് ഇപ്പം നമുക്ക് അറിയാതെ തുറന്നൊക്കെ വിടുവാണെങ്കിൽ നമുക്കത് വലിയൊരു അതിന്ന് വലിയൊരു പിന്നെ തീപിടിത്തം അങ്ങനത്തെ സംഭവങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പം ഇത് സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂള്ളൂ